മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോൾ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മീഡിയ മീഡിയയുടേതായ ഒരു രീതിയിൽ അവതരിപ്പിക്കും ചിലപ്പോൾ അതിൽ സത്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ പക്ഷേ നമുക്കത് പൂർണമായിട്ടും വിശ്വസിക്കാൻ ഒന്നും പറ്റില്ല പണ്ടത്തെ വാർത്ത ഇപ്പോഴത്തെ വാർത്തയും തമ്മിൽ ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെയുണ്ട് പണ്ട് നമുക്കൊരു കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അതിലെ മിക്കവാറും എല്ലാം സത്യമായിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറേ വാർത്തകൾ അവരുടെ ടി ആർ പി റേറ്റിംഗും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ഉണ്ടല്ലോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന മാധ്യമ പ്രവർത്തകരും ഉണ്ട് അതേമറിച്ച് പക്ഷേ എന്താ കൂടുതലായിട്ട് ഉള്ള ആൾക്കാരും അവരുടെ ടി ആർ പിക്ക് അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാർത്ത അവരുടെ അവരുടേതായ ഇഷ്ടങ്ങൾക്കും രീതികൾക്കും വേണ്ടിയിട്ട് കാശുണ്ടാക്കാനും അവരുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറേ അധികം വാർത്തകൾ അവരുടേതായിട്ട് സൃഷ്ടിച്ച് വിടുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു വാർത്ത വന്നു അത് പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാനും തോന്നും ചില സമയത്ത് അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും തോന്നും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വാർത്ത കേട്ടാൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റണ രീതിയിലുള്ള ഒരു കാലഘട്ടം ഒന്നുമല്ല മുമ്പത്തെ രീതിയിലെപ്പോലെ നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ കേട്ട ഉടനെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും റിയാക്ട് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇപ്പോൾ പറ്റണില്ല